ആ പ്രീതീന്ന് പറഞ്ഞ ബ്രോക്കറല്ലേ ആ ഞാൻ എൻ്റെ പേര് ടിൻ്റുന്നാണ് ഒരു ഒരു വീട് സ്ഥലവും നോക്കുന്നതിനെ പറ്റി അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് നമുക്ക് ഒരു മുരിക്കാശ്ശേരി ഒരു ഭാഗമായിട്ട് ആയിട്ടൊരു വീട് വേണം ആ അത്യാവശ്യം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റൊള്ളൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വാർക്ക വീട് വേണമായിരുന്നു ഒറ്റ ഒറ്റ നിലയാണല്ലോ ഒറ്റ നില മതി അത്യാവശ്യം ആ ആ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് ബെഡ് റൂമും അറ്റാച്ഡ് ബാത് റൂമും അതുപോലുള്ള സൗകര്യങ്ങളൊക്കെയുള്ള അത്യാവശ്യം നല്ലൊരു വീട് വേണമായിരുന്നു

ആ ആണ് വേണ്ടത് കുഴപ്പമില്ല വഴി സൗകര്യം ആ വേണ്ട വേണ്ട വേണ്ട വഴി സൗകര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതിയേ ആ അറിയാം അറിയാം അറിയാം ആ ഹ ആ ഹ ഹാ

ആ വഴി സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഹ ഹ ഒരുപാട് എത്ര എത്ര പ്രസുള്ള വീടുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്

ആ ഹ ഹ ആ ആ ഉണ്ടല്ലേ ആ ഹ ഹ ആ അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യങ്ങളും ഉണ്ടല്ലേ വെള്ളവും അങ്ങനെയെല്ലാ സൗകര്യങ്ങളും ഉള്ളതാണല്ലോ അല്ലേ ആ ആ ഹ ഹ ഹ ആ ആ ഹ ഹ ആയിക്കോട്ടെ വഴി സൗകര്യങ്ങളൊക്കെ വണ്ടിയൊക്കെ വരുന്ന സ്ഥലമാണല്ലോ അല്ലേ ആ ഹ ആ ഹാ ഹ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ അത് ശരി ആ ഉണ്ടല്ലേ ആയിക്കോട്ടെ ആ ആ ഹാ ആ ഹാ ആ ഹാ ആ ഹാ ഹാ

ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുണ്ട് മൂന്ന് മിനിറ്റായോ ആ

ആ ഹാ ആ സ്കൂളുകൾ ആ സ്കൂളുകളുണ്ട് ആ ഹാ ആ ഹാ ഹ എല്ലാത്തിനും സൗകര്യം ആ ആ ആ ആ സംസാരിച്ചിട്ട്

ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ എന്നെ ആ എന്നൊന്ന് കാണാൻ പറ്റും ആ ആ എന്നാണ് കാണാൻ പറ്റുക ആയിക്കോട്ടെ എന്നാണ് കാണാൻ വരാൻ പറ്റുന്നത് ആ ആയിക്കോട്ടെ ആ എന്നാൽ ഓക്കെ ശരി ഞങ്ങൾ വിളിക്കാമേ